പാട്ടുകൾ വളരെ നല്ലതാണ് നമ്മുടെ മനസ്സിനൊരു സം വീർപ്പ് വീർപ്പു മുട്ടിയിരിക്കുന്ന നമ്മുടെ മനസ്സ് മനസ്സിനെയൊക്കെ വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ് പാട്ട് എന്നത് പാട്ട് പാടാനായി ഞാൻ ഒരു ദിവസം ജോലികളൊക്കെ കഴിഞ്ഞ് ഫ്രീയായി ഇരിക്കുന്ന ഒരു ഒരു അരമണിക്കൂറോ ഒക്കെ പാട്ട് കണ്ടെത്താനായിട്ട് ഞാൻ നീക്കി വെക്കാറുണ്ട് ഞാൻ പാട്ട് പഠിച്ച ആളല്ല എന്നിരുന്നാൽ തന്നെയും പാട്ടുകൾ കേൾക്കാനും എന്നാൽ കഴിയുന്ന രീതിയിൽ ചെറുതായിട്ടൊക്കെ ഒന്നു പാ മൂളിപ്പാട്ട് പാടാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് ആ അപ്പം വളരെയധികം പാട്ടുകൾ നമ്മുടെ നമുക്ക് ഉണ്ട് നമുക്ക് നല്ല മെലഡി സോങ്സൊക്കെയുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം ആശ്വാസമായ റീലാക്സിങ് ആണ് നമുക്ക് ഒരു ദിവസം പോകുന്നത് അറിയുന്നതേ ഇല്ല അങ്ങനെ ഒരു ദിവസത്തേക്കുള്ള ഊർജ്ജം തന്നെ നമുക്ക് കിട്ടുന്നത് ഈ പാട്ടുകളിലൂടെയാണ് പാട്ടുകൾ വളരെയധികം നല്ല പാട്ടുകൾ നന്ന പാട്ടുകാർ പാ പാടി വെച്ചിട്ടുണ്ട് നമ്മൾ മലയാള സിനിമകളിൽ അല്ലാതെ തന്നെ പിന്നെ മത വിശ്വാസികളങ്ങനെയുള്ള ആണെങ്കിൽ അവർക്ക് മതപരമായ രീതിയിലാണ് തന്നെയും വളരെയധികം നല്ല പാട്ടുകൾ തന്നെ നമുക്ക് ഉണ്ട് ഞാൻ പട്ടു പഠിക്കുന്നത് യുട്യൂബ് പ്രധാനമായും യുട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വരുന്ന പാട്ടുകളൊക്കെയാണ് ഞാൻ കൂടുതലും പഠിക്കുന്നത് അപ്പോൾ അപ്പോൾ വന്നു തന്നെ എല്ലാ വരിക പാട്ടിൻ്റെ വരികളെല്ലാം നമുക്ക് യുട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ അതുവഴിയാണ് ഞാൻ പാട്ടൊക്കെ പഠിക്കുന്നത് പാട്ട് പ പാട്ട് പാടാൻ സ്വര മാധുര്യമൊന്നും ഇല്ലെങ്കിൽ പോലും മൂളിപ്പാട്ടൊക്കെ പാടാനുള്ള മാ പാടാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് വീർപ്പുമുട്ടിയിരിക്കുന്ന ഒരവസ്ഥയിൽ വിരസകരമായിരിക്കുന്ന വളരെ വിരസമായിട്ടുള്ള സമയങ്ങളൊക്കെ നമുക്ക് ഈ പാട്ട് പോലെയുള്ള നമുക്ക് വിനോദ ഉപാധികൾ വളരെയധികം പ്രയോജനകരമാണ് നമ്മളധികം അതു വേണ്ടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആ അപ്പം നമുക്ക് വളരെ സ നല്ലതായി നല്ല ഒരു വിനോദ വിനോദ ഉപാധിയാണ് ഈ പാട്ടെന്നു പറയുന്നത് പാട്ട് പാടുക എന്നതിനേക്കാൾ നമുക്ക് അതു കുറച്ചു നേരം ഒന്നു പാട്ടിൽ നിന്നു ലയിച്ചിരിക്കുന്നതൊക്കെ പാട്ടു കേട്ടു കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിനു വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് വളരെയധികം നല്ല പാട്ടുകൾ നമുക്ക് മെലഡി സോങ്സൊക്കെ ആയാലും നമുക്ക് പല യേശുദാസ് കെ ജെ എസ് ചിത്ര എന്നീ പ കുറേ അങ്ങനെ അങ്ങനെ ഒട്ടനവധി ഗായകർ നമുക്ക് പ തന്നിട്ടുണ്ട് അതു വളരെയധികം നല്ലതും തന്നെയാണ് ഞാൻ പാട്ടു പാടാനായി ജീവിതത്തിൽ കുറച്ചു സമയം നിമിഷങ്ങൾ മാറ്റി കുറച്ച് മണിക്കൂറുകൾ മാറ്റി വെക്കാറുണ്ട്